ആ വരൂ ആ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു റൂമ് മുകളിലെടുക്കാൻ പറഞ്ഞിട്ട്

അതെ സ്റ്റോറേജ് റൂമ് പോലെ

ഇല്ല ഇല്ലില്ലില്ല ഇപ്പം ബായ്ക്കിലാണ്

അതെ അതെ അതെ പിന്നെ ആവതും പെട്ടന്ന് തന്നെ തീർത്ത് കഴിഞ്ഞാൽ കെട്ടണ്ടത് സിമെൻ സിമെന്റ് കല്ല് സിമെന്റ് കല്ലാകുമ്പോൾ എത്ര രൂപ വരും എങ്ങനെയാണ് എത്ര വരും ആ എന്നാൽ ഹോളോ ബ്രിക്സ് തന്നെ മതി അതാകുമ്പോൾ പെട്ടെന്ന് ആകുകയും ചെയ്യുവല്ലോ റൂമാവുകയും ചെയ്യും സിമെന്റും മ സിമെന്റും മണല് അത് സിമെന്റും മണലുവൊക്കെ എങ്ങനെയാണ് നിങ്ങള് കൊണ്ടുവന്ന് തരുവോ ആള് നിങ്ങളുടെ കൈയിലുണ്ടോ അതോ

ഇവിടെ കുറച്ചേ ഉള്ളു തികയില്ല അന്ന് വീട് പണിക്ക് കൂടുന്നേൻ്റെ കുറച്ച് ഇവിടെയുണ്ട് അതിപ്പോൾ തികയുമെന്ന് തോന്നുന്നില്ല രണ്ടും മൂന്നും ചാക്കേ ഉള്ളു ആ പറഞ്ഞോടോ അത് നാളെ വെ നാളെ കൊണ്ട് വരാൻ പറയണ്ട നാളെ ഇങ്ങനെ പൈസാ എടുത്തിട്ട് വരട്ടെ മറ്റെന്നാൽ രാവിലേക്ക് സിമെന്റും കല്ലും അതൊക്കെ കൊണ്ട് വെരാൻ പറഞ്ഞോളു എപ്പം പണിക്ക് പണിക്ക് എപ്പം വരും പെട്ടന്ന് തന്നെ ചെയ്തും തരണം പെട്ടന്ന് തന്നെ വർക്ക് ചെയ്തും തരണം ഒരുപാട് വൈകിക്കാൻ പാടില്ല ആ വന്നോളു വന്നോളു വന്നോളു പൈസ തരാം നാളെ വൈകിട്ട് വന്നോളു പൈസ തരാം ആ അത് അവര് കൈയില് കൊടുക്കാം നിങ്ങളുടെ പണിക്കൂലി നിങ്ങള് വന്നോളു നിങ്ങളുടെ കൈയില് തരാം